എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് പ്രാർത്ഥനയിലൂടെയാണ് എഴുന്നേറ്റാൽ ഉടനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും അതിനുശേഷം മറ്റ് പ്രാർത്ഥനകളെല്ലാം ചൊല്ലിയതിന് ശേഷം ദേവാലയത്തിൽ പോവും ദേവാലയത്തിൽ പോയി ദിവ്യബലിക്ക് പങ്കെടുത്ത് അതിനുശേഷം ആണ് മറ്റു കാര്യങ്ങളിലേക്ക് എല്ലാം പ്രവേശിക്കുന്നത് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ വളരെയേറെ കാര്യങ്ങൾ നേടി എല്ലാം പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ നേട്ടങ്ങളാണ് ഓരോ കാര്യവും തുടങ്ങുന്നതിനു മുമ്പ് പ്രാർത്ഥിച്ച് തമ്പുരാനോട് അതിൻ്റെ അനുവാദം ചോദിച്ചിട്ടാണ് കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതിൻ്റെ ജീവിതത്തിലെ എൻ്റെ മക്കളുടെ കാര്യങ്ങളെല്ലാം പ്രാർത്ഥനയിലൂടെ മാത്രം സാധിച്ചെടുത്തതാണ് ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വലിയ അനുഭവം എൻ്റെ ജീവിതത്തിനുണ്ട് പ്രാർത്ഥനയോടെ നേടിയ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല ഏതു കാര്യം തുടങ്ങുമ്പോഴും അത് പ്രാർത്ഥനയിലാണ് തുടങ്ങുന്നത് അത് രാവിലെ തുടങ്ങുമ്പം തൊട്ട് രാത്രി കിടക്കുന്നത് വരെയും ദൈവ ത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടുമാണ് ജീവിച്ചുവരുന്നത് ആ അത് കാരണങ്ങളാൽ എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇനി അവരുടെ ജോലി കാര്യത്തിൽ ഒരു അല്പം ജോലിയും ഉണ്ട് അതൊരു കൂടാതെ അവന് നല്ല ജോലിക്കൾക്കായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മക്കളാണ് അത് ഇന്നും പ്രാർത്ഥനയിൽ തന്നെ തുടർന്ന് പോരുകയാണ് മക്കളുടെ വിവാഹങ്ങൾ ഒക്കെ ഉദ്ദേശിക്കുന്നതിലും ഭംഗിയായിട്ട് തന്നെ തമ്പുരാൻ നടത്തി തന്നു ഇതെല്ലാം എൻ്റെ പ്രാർത്ഥനയുടെ ഒരു അനുഭവം തന്നെയാണ് ഇനിയും വളരെ ഏറെ കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടാനുണ്ട് അതിനുവേണ്ടിയും ഞാൻ നിരന്തരമായിട്ട് തമ്പുരാനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പ്രാർത്ഥനയിൽ അവസാനം വരെയും തുടരാൻ തുടർന്ന് ഒരു നല്ല ലൈഫ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ കാര്യങ്ങളും തമ്പുരാൻ എനിക്ക് നടത്തി തരുന്നുണ്ട് ഒന്നിനും ഒരു കുറവ് വരുത്തുന്നില്ല അപ്പാം എല്ലാം ഈ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും മാത്രമാണ് തുടർന്നും എൻ്റെ ജീവിതം ഇതേ അവസ്ഥയിൽ തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു ചിന്തയോ മറ്റ് ദൈവത്തെ വിട്ട് ഒരു ജീവിതം എനിക്ക് ഇല്ല പല നൊയമ്പുകളും ഉപവാസങ്ങളും പ്രാർത്ഥനകളും എല്ലാം നടത്തി ആണ് കാര്യങ്ങൾ സാധിച്ചത് കിട്ടുന്നത് തമ്പുരാൻ്റെ അനു കൃപയും അനുഗ്രഹവും അല്ലാതെ മറ്റൊരു ജീവിതം എനിക്കില്ല തമ്പുരാൻ എന്നെ അത്രമാത്രം അനുഗ്രഹിക്കുന്നുണ്ട്